ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് എന്റെ ഡേറ്റ് ഓഫ് ബര്ത്ത് ആണ് വരുന്നത് സെക്കൻഡ് എനിക്ക് വരുന്നത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ എൻ്റെ മോന്റെ ഡേറ്റ് ഓഫ് ബര്ത്ത് ആണ് വരുന്നത് മൂന്നാമത് വരുന്നത് ഇരുപത്തിമൂന്ന് ഒ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എന്റെ ഹസ്ബന്ഡിന്റെ ഡേറ്റ് ഓഫ് ബര്ത്ത് ആണ് വരുന്നത് നാലാമത് വരുന്നത്

ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഡേറ്റ് ഓഫ് ബര്ത്ത് ആണ് വരുന്നത് അഞ്ചാമത് വരുന്നത് ഏപ്രില് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്റെ മാര്യേജിന്റെ ഡേ ഡേയ് ഡേയാണു വരുന്നത്